ഹലോ ആ പറഞ്ഞോളൂ മാഡം

ആ ഓക്കെ ആ ഓക്കെ മാഡം ആ ഓക്കെ മാഡം മാഡം ഏത് ടു വീലർ ആണ് സ്ക്കൂട്ടി ആണോ അതോ ബൈക്ക് ആണോ എങ്ങനെയാണ് നോക്കുന്നത് ആ ഓക്കെ മാഡം നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ വണ്ടിയും തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ കോഴിക്കോട് തന്നെയാണ് ബീച്ചിനോട് ചേർന്ന് ആ ആ ആ

ലൈസൻസ് മാത്രം നമുക്ക് ഇപ്പോൾ

പിന്നെ നമ്മൾ വണ്ടി തന്നുവിടുമ്പോൾ വണ്ടിയുടെ പേപ്പഴ്സും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെതന്നെ നമുക്ക് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോളും അതിനകത്ത് ഉണ്ടാവും മാഡം രണ്ടു ഹെൽമറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് റെൻറ് ഇപ്പോൾ ട്രിപ്പൾ നയൺ തൊട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയുന്നത് ട്വൽവ് അവേർസ് വരുന്നത് ട്രിപ്പൾ നയൺ ആണ് പെർ ഡേ നമ്മൾ അത്രയും ആണ് ചാർജ്ജ് ചെയ്യുക ആ നമുക്ക് ഒരു ദിവസം നാനൂറ് കിലോമീറ്റർ ആണ് ഇതാക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ഓടികഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ചാർജ്ജ് വേറെ വരും ആ

ആ നിങ്ങൾ ഇപ്പോൾ പകുതി പേ ചെയ്യുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ വണ്ടി തരുന്ന ടൈമിൽ ഫുൾ പേയ്മെൻ്റ് ചെയ്താലും മതി പിന്നെ എത്ര ദിവസത്തേക്ക് ആയിരിക്കും മാഡം വണ്ടി വേണ്ടിവരിക

ഓക്കെ മാഡം